ഇപ്പോൾ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ പേര് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അനുമോൻ എന്നാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനുന്നൊക്കെ വിളിക്കും അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് ഏട്ടന്മാരുണ്ട് ഒരു ചേച്ചിയുണ്ട് പിന്നെ ഞാനും അപ്പം നാല് പേരാണ് മൊത്തത്തിലുള്ളത് എന്ന് പറയാം അപ്പോൾ ബാക്കിയുള്ളവർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്പോ ബാക്കിയുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് എന്റെ അമ്മയ്ക്ക് അമ്മേന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആറ് മക്കളാണ് ഉള്ളത് ആറ് മക്കൾക്കും ഈ രണ്ട് പേര് വച്ചിട്ടാണ് അപ്പം ആറ് മക്കളല്ല ഏഴ് മക്കൾ ഏഴ് പേരിൽ ഒരാൾക്ക് നാല് പേര് അതായത് എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ നാല് പേരാണുള്ളത് അപ്പം ബാക്കിയുള്ളവരന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോർത്തക്കും ഓരോ ഇനിയിപ്പോൾ ഒരാൾക്ക് ആണും പെണ്ണും പിന്നെ രണ്ടാൾക്ക് പെണ്ണ് മാത്രം അങ്ങനെ ഉണ്ട് കുറേ പേർക്ക് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പോൾ പുള്ളി നല്ല രീതീൽ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എന്നെ നോക്കിയതും അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ജോലിയും ചെയ്ത് ഒരു ഭാര്യ ഉണ്ട് അങ്ങനെ ഞാന് നല്ല രീതീൽ ഒരു ജോലിയും ചെയ്തിട്ടിപ്പോൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നു